ആ പറയൂ ആ കുറച്ച് പണിത്തിരക്കായിരുന്നു ആ നമുക്കെടുക്കാമല്ലോ നമുക്കിപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് ചെയ്യണോ അതോ ഷീറ്റിടണോ ഓ ആ കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചു ചിലവ് കൂടും ഷീറ്റാകുമ്പോൾ കുറച്ചു ചിലവ് കുറയും ചെങ്കല്ലാകുമ്പോൾ നമുക്ക് കുറച്ച് ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ വെട്ടുകല്ലെടുത്ത് അല്ലെങ്കിൽ ഹോളോബ്രിക്സ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലാഭമായിരിക്കും നമുക്ക് പണിയും പെട്ടെന്ന് കുറയും അതുപോലെ നമുക്ക് അറിയുന്ന ഒരു കമ്പനിയുണ്ട് അപ്പോൾ അവിടുന്നെടുക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും ആ ഇത് എത്ര റൂം വേണ്ടി വരും സിമെൻറ്റിപ്പോൾ എണ്ണൂറു രൂപയാണ് ഒരു ചാക്ക് സിമെൻറ്റിന് നമുക്കിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴൊരു പത്ത് മുപ്പത് ചാക്ക് വേണ്ടിവരും ഉം പിന്നെ തേപ്പുപണി എല്ലാം കൂടിയാകുമ്പോൾ കുറച്ച് ആ പിന്നെ കമ്പിയും കമ്പിയും സിമെൻറ്റും ഒക്കെ നമുക്ക് അറിയാവുന്ന കടയുണ്ട് അവിടുന്നെടുക്കാം അതിപ്പോൾ എത്ര റൂം വേണം മൊത്തത്തിൽ രണ്ടു റൂം വേണം അപ്പോൾ നമുക്കൊരു മൂന്ന് മൂന്നരലക്ഷം രൂപയുടെയുള്ളിൽ വരും ആ ചെയ്യാം നമുക്ക് ചെയ്യാം ഇപ്പോൾ കുറച്ച് തിരക്കാണ് വേറെ സ്ഥലത്ത് പണി നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഈയാഴ്ച കഴിഞ്ഞിട്ട് അടുത്താഴ്ച വന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു റൂം വലുതും ഒരെണ്ണം ഒരു റൂം വലുതും ഒരു റൂം ചെറുതുമായിട്ട് ചെയ്യാം ഒരു റൂം പന്ത്രണ്ടരക്കു പന്ത്രണ്ടും ആ എങ്ങനെയാണ് ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഒരു റൂം പതിനഞ്ച് പന്ത്രണ്ടും ഒരു റൂം പന്ത്രണ്ട് പന്ത്രണ്ടും ചെയ്യാം ആ ചെറിയൊരു സ്റ്റോറേജ് സ്ഥലമൊക്കെ ഉണ്ടാകും നമുക്കിപ്പോൾ ഒരു കട്ടിലൊക്കെ ഇട്ടാലും അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടാകും നടക്കാനും ഇരിക്കാനുമൊക്കെ ഉപയോഗപ്രദമാകും ഉം

ആ അപ്പോൾ റൂമിൻ്റെ സൈസ് കല്ല് നമുക്ക് അറിയുന്നൊരു സ്ഥിരം എടുക്കുന്ന ആളുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞാൽ അവര് കൊണ്ടുവന്ന് വീട്ടിക്കൊണ്ട് തട്ടിക്കോളും ആ ആ അത് കൊണ്ടുത്തരും നമുക്ക് അവര് പൈസ കൊടുത്താൽ മതി അവര് ഡയറക്റ്റ് രാവിലെയാകുമ്പോഴേക്കും കൊണ്ടു വന്ന് തട്ടിക്കോളും ആ ഒരു ആദ്യ ഒരു അഡ്വാൻസ് ആയിട്ടൊരു അൻപതിനായിരം ഉറുപ്പിക തരുകയാണെങ്കിൽ നമുക്ക് കല്ലൊക്കെ ഇറക്കാം ആ അൻപതിനായിറാം ഉറുപ്പിക ആദ്യം തരുവാണെങ്കിൽ നമുക്ക് കല്ലൊക്കെ ഇറക്കി വെക്കാം പിന്നെ പണി തുടങ്ങുന്ന സമയത്ത് കുറച്ചായിട്ട് ഒരു ദിവസം തന്നാൽ മതി ആ തന്നാൽ മതി ആ അൻപതിനായിരം വേണം നമുക്ക് ആ നമുക്ക് കല്ലൊക്കെ ഇറക്കണ്ടേ അപ്പോൾ കല്ലൊക്കെ ഇറക്കാനുള്ള പൈസ നമുക്കാദ്യം വേണം ആ ആ അത് കുറച്ച് തിരക്കിലായിരുന്നു ആ ആ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങാം ഈയൊരാഴ്ചക്കല്ല അടുത്താഴ്ച തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് ഇപ്പോൾ തിങ്കാഴ്ച തന്നെ കല്ലിറക്കാൻ പറയാം അപ്പോൾ അഡ്വാൻസായിട്ട് കുറച്ച് പൈസ വേണം എന്നാലേ നമുക്ക് കല്ലിറക്കാൻ പറ്റുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച പോയിട്ട് ആ തിങ്കളാഴ്ച പോയിട്ട് പൈസ കിട്ടിയിട്ട് ആ ശരി ആ ആ ശരി ആ ശരി എന്നാൽ തിങ്കളാഴ്ച തന്നെ കല്ലിറക്കാൻ പറയാം ആ എന്നാൽ അങ്ങനെ ചെയ്യാം